നമ്മളൊരു റോസാച്ചെടി ഒരു റോസാക്കൊമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ ആ കൊമ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലെ പിന്നെ മണ്ണിൽ ഒരു പോട്ടിൽ നട്ടുവെക്കുക വച്ചോ അതിനാദ്യം എല വരുന്നു രണ്ടില വരുന്നു മൂന്നില വരുന്നു നാലില വരുന്നു ഫീൽ ഈസ് വെരി ഹാപ്പിയായിരിക്കും നമ്മുടെ മൈൻ്റും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മൾ നട്ടൊരു ചെടിയാണ് അപ്പം അതിൽ നിന്ന് ഒരില വരികയെന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതിൽ നിന്ന് മൊട്ടുണ്ടാവുമ്പം കണ്ടോ ഞാൻ നട്ട ചെടിയാണ് അതിൽ മൊട്ടുണ്ടായി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരേയും വിളിച്ച് കാണിച്ചുകൊടുക്കും അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണത് പിന്നെ അതിന് പൂവുണ്ടായി അപ്പം നമുക്ക് വളരെ മനസ്സിന് ഒരു അതു നമുക്ക് അനുഭവം വർണ്ണിക്കാമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറയാൻ വാക്കുകൾ ഉണ്ടാവില്ല അത് എന്താ പറയുക അതൊരു പ്രത്യേക ഫീലാണ് പറഞ്ഞു പറഞ്ഞിതാക്കാൻ പറ്റില്ല അത് അനുഭവിച്ചറിയണം അത്രയും നല്ലൊരു സന്തോഷമുള്ള നമ്മൾ ചെയ്യുന്ന നമ്മൾ നട്ടു നമ്മൾ ഉണ്ടാക്കി എന്നു പറയുമ്പം അത് ഭയങ്കര സന്തോഷമല്ലേ മനസ്സിനായാലും വേറൊരാളോട് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം കണ്ടോ ഞാൻ നട്ടതാണ് അങ്ങനെ പറയാൻ പറ്റും